മുപ്പത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിനാല് പന്ത്രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പതിനാല് രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഒമ്പത് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തേഴ് പതിമൂന്ന് പതിനൊന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ്